എന്നെ സംബന്ധിച്ചെടുത്തോളം സംഗീതം എന്ന് പറയുന്നത് വളരെ മനസ്സിന് സന്തോഷം കൊടുക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ മനുഷ്യനെ എല്ലാം സംബന്ധിച്ചിടത്തോളവും സംഗീതം എന്ന് പറയുന്നത് എല്ലാവർക്കും അതെത്ര കഠിന ഹൃദയനെ പോലും അലിയിക്കുന്ന ഒന്നാണ് സംഗീതമെന്ന് പറയുന്നത് അത് മനസ്സിനെ ഭ്രമീകരിക്കുന്ന മനുഷ്യൻ്റെ ഭാവനയെ വച്ചുണർത്തുന്ന അവനെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ട് പോകുന്ന ഒന്നാണ് സംഗീതം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിൻ്റെ ആ മനുഷ്യ മനസ്സിന് ദൈവം നൽകിയിട്ടുള്ള സുപ്രധാന ഗുണങ്ങൾ ഒന്നാണ് സംഗീതം ആസ്വദിക്കാനുള്ള കഴിവെന്ന് പറയുന്നത് സംഗീതത്തെ നമുക്ക് പല രീതീൽ നമുക്കതിനെ പല രീതിയിലുള്ള സംഗീതം നമുക്കൊണ്ട് ആ സംഗീതം എല്ലാം തന്നെ എല്ലാത്തിൻറേം ലക്ഷ്യം എന്ന് പറയുന്നത് ആനന്ദമാണ് മനുഷ്യ മനസ്സിനെ ആനന്ദത്തിൽ ആറാടിക്കുക എന്നുള്ളതാണ് ഓരോ സംഗീതത്തിന്റെയും ലക്ഷ്യം എന്നെ സംബന്ധിച്ചെടുത്തോളം എനിക്ക് ഏറ്റോം ഇഷ്ടമുള്ള ഒരു പാട്ടാണ് എത്രയും ദയയുള്ള മാതാവേ നിൻ സങ്കേതം തേടി വരുന്നു ഞാൻ എന്നുള്ള ഒരു ഡിവോഷണൽ സോങ് ഇതെന്നെ പലപ്പോഴും അത് നിസ്സഹായമായിരിക്കുന്ന നിസ്സഹായമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ആ എപ്പോഴും ഏകാന്തമായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സൊക്കെ കൈവിട്ട് കൈവിട്ട് പോകുന്ന ഒരവസ്ഥ വരുമ്പോൾ ആ സമയത്ത് മനസ്സിന് എപ്പോഴും കുളിർമ്മ നൽകുന്ന സന്തോഷം നൽകുന്ന ഒന്നാണ് ഈ പാട്ട് ഈ പാട്ടിലൂടെ തികച്ചും നമുക്ക് എപ്പോഴും അപ്രാപ്യമായിരിക്കുന്ന ആ എപ്പോഴും പ്രാപ്യമായിരിക്കുന്ന മാതാവിൻ്റെ ആ ഒരു ഓർമ്മയാണ് അല്ലെങ്കിൽ മാതാവിലേക്ക് ചെന്നെത്തുന്ന ഒരു അനുഭവമാണ് ഇ പാട്ട് പാടുമ്പോൾ എനിക്കുണ്ടാകുന്നത് ഈ പാട്ടിൽ അതിൻ്റെ വരിയിലൂടെ കടന്ന് പോകുമ്പോൾ തീർച്ചയായിട്ടും മാതാവിൻ്റെ ആ ഒരു ചിന്തകളും മാതാവിൻ്റെ സഹനപ്രവർത്തികളും മറ്റുള്ളവർക്കായിട്ട് മാതാവ് ചെയ്യുന്ന നന്മ പ്രവർത്തികളൊക്കെ എൻ്റെ മനസ്സിനെ സ്വാധീനിക്കുകയും എൻ്റെ മനസ്സിനെ വശീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഗാനം ആലപിക്കുമ്പോഴും ഇത് കേൾക്കുമ്പോഴും മറ്റ് എൻ്റെ മനസ്സിൽ മറ്റ് മ മറ്റ് മനുഷ്യരോടുള്ള അനുകമ്പയും ആർദ്രതയും നിറഞ്ഞ് നിൽക്കുന്ന നിറഞ്ഞ് നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ ഒരു വരി ഈ പാട്ട് പാടുമ്പോൾ ആ എപ്പോഴും അതെനിക്കൊരു അധ്യാത്മീകമായ പുതിയൊരു ശക്തി എൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ട് പോകാൻ പ്രതിസന്ധികൾ വരുമ്പോൾ അതോടൊപ്പം തന്നെ പ്രയാസങ്ങൾ വരുമ്പോൾ മുന്നോട്ട് എന്ത് ചെയ്യണം അറിയാതെ നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ രൂപപ്പെടുമ്പോൾ ഇവ ഇവിടെയൊക്കെ നമുക്ക് പലപ്പോഴും ആശ്വാസമായിട്ട് നിൽക്കുന്ന ഒന്നാണ് ഈ ഗാനമെന്ന് പറയുന്നത് ഈ ഗാനം നമുക്ക് എപ്പം മനുഷ്യ മനസ്സ് എത്ര കലുഷിതമായാലും എത്രമാത്രം കനാ കാറ് കാറും കോളും നിറഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുമ്പോഴും മനുഷ്യ മനസ്സിനെ നമുക്ക് നന്നായിട്ട് സ്വാധീനിക്കാൻ പറ്റുന്ന മനുഷ്യ മനസിലെ എല്ലാ ഭാരങ്ങളും എടുത്ത് മറ്റുവാനായിട്ട് സാധിക്കുന്ന അതിനെ മനുഷ്യ മനസ്സിനെ ഭാരമില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ട് പോകാൻ സാധിക്കുന്ന ഒന്നാണ് യാഥാർത്ഥത്തിൽ ഈ എത്രയും ദയയുള്ള മാതാവേ എന്ന ആ ഗാനം ആ ഗാനത്തിൻ്റെ ആ വരികളും അതോടൊപ്പം തന്നെ ആ ഗാനത്തിൻ്റെ ചിട്ടപ്പെടുത്തിയ ചിട്ടപ്പെടുത്തിയ രീതീകളും അതിന് അടിസ്ഥാനമായി ഉപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ ട്യൂണും ഒക്കെ നമുക്ക് വല്ലാത്തൊരു ആകർഷകത്വം അതോടൊപ്പം തന്നെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് വല്ലാത്തൊരു സന്തോഷവും പ്രധാനം ചെയ്യുന്ന ഒന്നാണ് ഈ ഗാനം ഇങ്ങനെ ഇടക്കിടക്ക് പാടുമ്പോഴും അത് ഓർക്കുമ്പോഴും അത് മനസ്സിലെ ആ മനസ്സിൻ്റെ ആ ആശയങ്ങൾ മനസ്സിലേക്ക് കൊണ്ട് വരുമ്പോഴും ആ ഇങ്ങനെയുള്ള ആ അതിലേക്ക് പോകുമ്പോൾ എപ്പോഴും മനസ്സ് നല്ല സജീവമായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഓരോ ഗാനം പ്രാർഥിക്കുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു തവണ പ്രാർത്ഥന ഒരു തവണ പാടുന്ന പാടുമ്പോൾ ഏഴ് തവണ പ്രാർഥിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രയ അപ്പം പ്രാർഥനക്ക് തുല്യമാണ് യാഥാർത്ഥത്തിൽ ഓരോ ഗാനവും ഈ ഗാനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം പ്രധാനം ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മളെ തളരാതെ മുന്നോട്ട് കൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട് എപ്പോഴും മനസ്സിലെ ഒരു പ്രാർഥന ആഭിമുഖ്യം കടന്ന് വരുന്നുണ്ട് അങ്ങനെയുള്ള ആ ഒരു മനുഷ്യ മനസ്സിനെ മറ്റ് ഉള്ള മേഖലകളിലേക്ക് പ്രത്യേകിച്ച് നല്ല സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു സ്വതസിദ്ധമായിട്ടുള്ള ഒരു ശൈലിയിലേക്ക് കൊണ്ട് പോകുന്ന ജീവിതത്തിലേക്ക് കൊണ്ട് പോകുന്ന ഒന്നാണ് ഈ സംഗീതം ഈ പാട്ടെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സംഗീതത്തെ നമുക്ക് എപ്പോഴും വളരെ എപ്പോഴും ഈസ് ഇത് പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭൂതിയെന്ന് പറയുന്നത് വളരെ മെച്ചമാണ്